നമ്മുടെ കുട്ടിക്കാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒത്തിരി ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കുട്ടിക്കാലം പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ കളിച്ചു നടന്നതും ഒത്തിരി രസകരമായ കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും എൻ്റെ ഒരഭിപ്രായം വെച്ചിട്ട് നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തേലും വിഷമതകൾ അല്ലെന്നുണ്ടെങ്കിൽ സങ്കടത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളതൊരു മൈൻഡ് ഫ്രീയാകുന്ന എൻ്റെ എൻ്റെ ഒരഭിപ്രായം വെച്ചിട്ട് എനിക്കങ്ങനെ തോന്നാറുണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനെൻ്റെ കുട്ടിക്കാലത്തെ പറ്റിയും പഴയ ഓരോ കാര്യങ്ങളും കൂട്ടുകാരായിട്ട് കളിച്ച് നടന്നതും ഓരോ പരിപാടികൾ ഓരോ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചതിനെ പറ്റിയും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ പറ്റി ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും ശരിക്കും പറഞ്ഞാൽ അതെനിക്കൊരു വേറൊരു ഫീല് തന്നെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ജോലിത്തിരക്കും ഇതിനെല്ലാം ഇടക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടാറില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് ഓർത്തെടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അനുഭവം നമുക്ക് കിട്ടുമെന്ന് ആണ് എൻ്റെ ഒരു തോന്നൽ